എൻ്റെ പക്കൽ അങ്ങനെ കൂടുതലായിട്ട് ബുക്കിൻ്റെ കളക്ഷൻസൊന്നുമില്ല കാരണം ബുക്ക് വായിക്കുക എന്നുള്ളത് എന്റേയൊര് ഫസ്റ്റ് ഹോബിയല്ല സെക്കൻഡ് ഹോബിയാണ് ഞാൻ ബുക്ക് വായിക്കും പക്ഷെ ഏതു നേരവും ബുക്ക് വായിച്ചിട്ടുള്ള ഒരാളൊന്നും അല്ല ഞാന് എൻറ്റെടത്ത് കൂടുതലായിട്ട് ബുക്കിൻ്റെ കളക്ഷൻസൊന്നുമില്ല ഞാൻ ബുക്ക് വായിക്കും എൻ്റെ ഫ്രെണ്ട്സൊക്കെ സജസ്റ്റ് ചെയ്യുന്ന ബുക്കൊക്കെ ഞാൻ വായിക്കും ഈ അടുത്ത് സോഷ്യൽ മീഡിയയിൽ തരംഗമായിട്ടുള്ള ഒരു ബുക്കുണ്ട് റാം കേർഓഫ് ആനന്തി അഖിൽ പി ധർമ്മജൻ എന്ന് പറയുന്ന ഒരാളാണ് അതെഴുതിയിട്ടുള്ളത് അത് വളരെ നല്ലൊരു ബുക്കാണ് അത് ഈയടുത്ത് ഞാൻ വായിച്ച ബുക്കാണ് എൻ്റെ ഫ്രണ്ട്സ് ഫാമിലിയൊക്കെ പറഞ്ഞു മോളേ ഇത് വായിക്ക് ഇത് അടിപൊളി ബുക്കാണെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ വായിച്ച ബുക്കാണ് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടൊരു ബുക്കാണ് അതുപോലെതന്നെ കെ മോഹനൻ എഴുതിയിട്ടുള്ള ഒരിക്കൽ എന്ന ബുക്ക് അതും വളരെ നല്ലൊരു ബുക്കാണ് അതും വായിക്കണം എന്നെനിക്ക്ണ ഉണ്ട് അത് വായിച്ചിട്ടില്ല അത് ഞാൻ വായിക്കും പ്രേമനഗരം എന്ന ബുക്ക് ഞാൻ വായിച്ചിട്ടുണ്ട് അത് സൂപ്പർ ബുക്കാണ് പിന്നെ നീർമാധളം എന്ന ബുക്ക്ണ്ട് ആ ബുക്ക് ഞാൻ വായിച്ചിട്ട്ണ്ട് അടിപൊളി ബുക്കാണ് പക്ഷെ അതിൻ്റെ കളക്ഷൻസൊന്നും എൻ്റെ കയ്യിലില്ല ഞാൻ വായിച്ചിട്ടുണ്ട് അത്ര തന്നെ ഉള്ളു പിന്നെ ബഷീറെഴുതിയിട്ടുള്ള എൻ്റെ ഉപ്പുപ്പാക്കൊരാനണ്ടായിര്ന്നു ആ ബുക്കൊക്കെ നല്ല ബുക്കാണ് പാത്തുമ്മേൻ്റെ ആട് അതൊക്കെ സൂപ്പർ ബുക്കാണ് ഇതേ പോലെ തന്നെ നമ്മുടെ ഇന്ത്യയുടെ മിസൈൽമാൻ എന്നറിയപ്പെടുന്ന എ പി ജെ അബ്ദുൽകലാമിൻ്റെ ബുക്കുകള് ഞാൻ വായിച്ചിട്ടുണ്ട് ഒക്കെ സൂപ്പറ് ബുക്കുകളാണ് അതുപോലെ തന്നെ മലയാളം ബുക്കുകളാണ് ഞാൻ കൂടുതലും വായിച്ചിട്ടുള്ളത് കൂടുതല് ഫ്രെണ്ട്സിനോട് വായിക്കാൻ സജെസ്റ്റ് ചെയ്തിട്ടുള്ളതും ഞാൻ മലയാളം ബുക്സാണ്